ഞങ്ങളുടെ സമീപത്ത് ഒരു വളരെ പ്രശസ്തമായ ഒരു മര മത കേന്ദ്രമുണ്ട് മണർ കാട് പള്ളി അതെന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പള്ളിയാണ് നാനാ ജാതി മതസ്കർ എല്ലാവരും വന്നു ചേർന്ന് അതും കേരളിത്തിൽനിന്ന് പുറത്തുള്ള തമിഴ്നാട്ടിൽനിന്നും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽനിന്നും നിന്നുള്ള ആളുകളാണെങ്കിൽ അവിടേക്ക് വരാറുണ്ട് സെപ്റ്റംബർ മാസങ്ങളിലാണവിടെ കൂടുതലും സഞ്ചാരികൾ അല്ലെങ്കിൽ ആളുകൾ വരാറുള്ളത് ആ സമയത്താണ് അവിടുത്തെ പെരുന്നാളെന്നു പറയുന്നത് ഒരു ഇതുള്ളത് പെരുന്നാളാണെങ്കിലും ഇഷ്ടംപോലെ ആളുകളാണ് അതും ഈ കോട്ടയത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ആളുകളും വന്ന് ചേർന്ന് കൂടാറുണ്ട് ആ സമയത്തൊക്കെ ആണെങ്കില് ഭയങ്കര സൻ വിനോദസഞ്ചാരികളും അവിടെ വരാറുണ്ട് തിക്കും തിരക്കും ഒക്കെയാണ് ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയാണത് എന്നാൽ അതവിടുത്തെ ആണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ് നമുക്ക് എന്താണ് പറയുക ഇവിടെ കോട്ടയം ടൗണിൽ നിന്നാണെങ്കിൽ ഒരു ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരം അത്രയേ ഉള്ളൂ നമുക്കാണെങ്കിൽ ആ പള്ളിയിലേക്ക് നമ്മളിടയ്ക്ക് പോവാറൊക്കെയുണ്ട് നമുക്കാണെങ്കിൽ ഇന്നത് പോലെ എന്താണ്